ഹലോ ഞാൻ ഫ്ലെക്സിയാണ് എനിക്ക് ചങ്ങനാശ്ശേരിക്ക് സ്ഥലംമാറ്റം കിട്ടിയായിരുന്നെ അപ്പോൾ എനിക്ക് ഗ്യാസ് കിട്ടാൻ വേണ്ടി എൻ്റെ റെഫറൻസ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാണെ എനിക്കിപ്പം എൻ്റെ ഗ്യാസിനിപ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരി ഞാൻ ഇത്തിത്താനത്താണ് താമസിക്കുന്നത് ഇപ്പം ഇങ്ങോട്ടു മാറുന്നത് അന്നേരം എനിക്ക് നിങ്ങളെ അവിടെ നിന്ന് ഗ്യാസ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇത്തിത്താനത്തേക്ക് തരണമായിരുന്നേ അപ്പം അതിനു വേണ്ടി ഞാൻ വിളിക്കുന്നത് അപ്പം എനിക്ക് ജോലി ഇപ്പം ഇങ്ങോട്ടായി ചങ്ങനാശ്ശേരിക്കേ അപ്പം അതുകൊണ്ട് ഗ്യാസിൻ്റെ ത് നിങ്ങളുടെ ഗ്യാസ് എങ്ങനെയെങ്കിലും ഇവിടെ തരണം എന്നാലെ എനിക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഗ്യാസിന്റെ ഇതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇത് ഇവിടെ കിട്ടാൻ വേണ്ടിയാണ് വിളിച്ചത് എനിക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് ഗ്യാസ് ചങ്ങനാശ്ശേരിക്ക് എത്തിച്ചു തരണേ ഏജൻസി നിങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ നിങ്ങളുടെ ഏജൻസി കാണുമല്ലോ അപ്പോൾ അതു വഴി എനിക്കങ്ങനെ ഇങ്ങോട്ട് ആക്കി തരണം അപ്പം എനിക്ക് എൻ്റെ അഡ്രസ്സ് ഞാൻ പറയാം ഫ്ലെക്സി ബിജു മുണ്ടകത്തിൽ ഹൗസ് എത്തിത്താനം പി ഒ ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ എനിക്ക് ഈ അഡ്രസ്സിലേക്ക് വേണം എനിക്ക് ഈ ഇനി ഇപ്പോൾ ഗ്യാസ് തരാൻ വേണ്ടി